ഞങ്ങളുടെ നാട്ടില് മെയിനായിട്ട് നടക്കുന്നത് തെക്കന് കുരിശുമല എന്നു പറയുന്ന ഒരു റിലീജിയസായിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് അതു ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടെയാണ് ട്രഡീഷണലായിട്ട് ഒരുപാട് ആള്ക്കാർ ഇത് ഫോളോ ചെയ്തു വരുന്നുണ്ട് മാര്ച്ച് ഏപ്രില് മാസങ്ങളില് ദുഃഖവാരത്തോട് അനുബന്ധിച്ചാണ് ഈ ഒരു ഫെസ്റ്റിവല് നടക്കുന്നത് വെള്ളറട തിരുവനന്തപുരത്ത് വെള്ളറടയിലാണ് ഈ ഒരു ഫെസ്റ്റിവല് നടക്കുന്നത് തെക്കന് കുരിശുമലയിലാണ് അപ്പോൾ ഇത് വര്ഷങ്ങള്ക്ക് മുമ്പ് റെവറന്റ് ഫാദര് ജോണ് ബാപ്റ്റിസ്റ്റ് ഓസിഡീന്ന് പറയുന്നൊരച്ഛന് ഇറ്റലിയില് നിന്നും ഇവിടെ തിരുവനന്തപുരത്തെ പ്രത്യേകിച്ചും തെക്കേയറ്റത്തെ പ്രദേശമായ ഉണ്ടന്കോടെന്നു പറയുന്ന സ്ഥലത്ത് വരികയും അവിടെ നിന്ന് അച്ഛന് വിദ്യാഭ്യാസത്തിന് തുടക്കമിടുകയും പള്ളിക്കൂടങ്ങള് സ്ഥാപിക്കുകയും അവിടുത്തെ കുറച്ചാള്ക്കാരെ വിളിച്ചിട്ട് കുരിശുമലയില് പോയി ഏറ്റവും മൂവായിരം അടി നടന്ന് മുകളിലേക്കെത്തി അവിടെയൊരു കുരിശു നാട്ടുകയും ചെയ്തു അങ്ങനെ അത് വര്ഷങ്ങള്ക്ക് ശേഷം ഓരോ ദുഃഖവാര സമയത്തിനോടനുബന്ധിച്ച് അവിടെ പതാക ഉയര്ത്തുകയും കുരിശുമലയിലേക്ക് നിരവധി ആളുകൾ തീര്ത്ഥാടനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു